ഞങ്ങൾ ഓടാൻ പോകുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഓടാറ് രാവിലെ ഇപ്പോൾ ഒരു അഞ്ചര മണിയാവുമ്പോൾ എണീക്കും എന്നിട്ട് ഒരാറു മണിയാകുമ്പോഴേക്ക് എല്ലാവരും ഗ്രൗണ്ടിൽ എത്താൻ പറയും എന്നിട്ട് നമ്മൾ ഓടാൻ പോകും പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവരെയും വിളിച്ചുവരുത്തി അവരൊക്കെ വന്ന് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കലുകളും തമാശകളും ഇതൊക്കെ പറയും ഒരാളെ മാത്രം ചിലപ്പോൾ റൗണ്ട് ആയിട്ട് വട്ടത്തിൽ നിന്ന് കളിയാക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ആ അപ്പോഴത്തെ ഒരു ഇതാണ് ഇങ്ങനെ കളിയാക്കും നമ്മൾ ഓടാൻ പോവും ഓടാൻ പോകുമ്പോൾ അതിപ്പോൾ എല്ലാവരും ഒരേ പോലെ ആയിരിക്കില്ല ഓടുക ചിലവർക്ക് സ്റ്റാമിന ഉണ്ടാവും ചിലവർക്ക് സ്റ്റാമിന ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്റ്റാമിന കമ്മി ഉള്ളവരെ അല്ലെങ്കിൽ ചിലവന്മാർ മടിയന്മാരായിരിക്കും ഓടുമ്പോൾ ഒരു റൗണ്ട് ഇപ്പോൾ അഞ്ച് റൗണ്ട് ഓടുകയാണെങ്കിൽ ചിലവന്മാര് രണ്ട് റൗണ്ട് കഴിയുമ്പോൾ നിർത്തും ചിലവന്മാര് ഒരു റൗണ്ട് കഴിയുമ്പോൾ നിർത്തും ചിലവര് മൂന്ന് റൗണ്ട് കഴിയും എന്നാൽ ഇവരെയൊക്കെ കളിയാക്കും ഫുഡ് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഓടാൻ സാധിക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇവരെയൊക്കെ തമാശയ്ക്ക് ആണെങ്കിലും തമാശക്കാണ് കളിയാക്കും അതേപോലെ അതൊക്കെയാണ് ഇത് പിന്നെ അതുപോലെ എല്ലാവരും നാലഞ്ചു പേരൊക്കെ കൂടി ഒരുമിച്ചു ഓടുക ഒരുമിച്ച് ഓടുമ്പോൾ പരസ്പരം തമാശകൾ പറയുക അതേപോലെ അവരെ വിശേഷങ്ങൾ ആ ഓട്ടം കഴിഞ്ഞ് തലേന്ന് നടന്ന വിശേഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അത് നമുക്കും നല്ലൊരു എനർജിയും പിന്നെ ഓർത്തിരിക്കാൻ പറ്റിയ കുറച്ച് അറിവുകൾ ഒക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്